ജൂൺ പത്തൊൻപത് വായനാദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും മറ്റു പൊതു ഇടങ്ങളിലും ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക എന്നത് തന്നെയാണ് മലയാള ഭാഷയെ സംരക്ഷിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രവർത്തി